ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയില് ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് കൂടുതലും അമ്പലങ്ങളാണ് ഞങ്ങളുടെ ജില്ലയെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ശബരിമല എല്ലാ ആളുകളും വളരെയധികം പ്രാർഥന ഭയഭക്തിയോട് കൂടി എത്തുന്ന ഒരു സ്ഥലമാണ് ശബരിമല ഹൈന്ദവ സമൂഹത്തിൽപ്പെടുന്ന ഒട്ടുമിക്ക ആൾക്കാരും ശബരിമലയിൽ ശ്രീ കാണാനായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ശബരിമലേനെക്കുറിച്ച് പറയുവാണങ്കില്

പിന്നെ പുരുഷന്മാരും പുരുഷന്മാർക്ക് ഏതൊരു കാലഘട്ടത്തിലാണങ്കിലും അവർക്ക് ശബരി മലയില് സന്ദർശിക്കാനായിട്ട് സാധിക്കും പിന്നതുപോലെ തന്നെ ഞങ്ങളുടെ ജില്ലയിലെ മറ്റൊരു പ്രധാന വിനോദസഞ്ചാരകേന്ദ്രമാണ് കോന്നി ഫോറെസ്റ്റ് റിസേർവ് എന്ന് പറയുന്നത് മറ്റെ കാടുകൾക്കുള്ളിലൂടെയുള്ള ഒരു യാത്ര എന്ന രീതിയിലാണ് ഈ കോന്നി ഫോറെസ്റ്റ് റിസേർവ് വളരെയധികം ആൾക്കാരെ വിനോദസഞ്ചാരികളെ കൂടുതലും വിനോദസഞ്ചാരികള് കൂടുതലും അതുകൊണ്ടാണിവിടെ എത്തുന്നത് അതുപോലെ തന്നെ ആറന്മുള കണ്ണാടി അതി പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനന്തിട്ട ജില്ലയിലാണ് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ആറന്മുള കണ്ണാടി വിനോദസഞ്ചാരികൾക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ലോഹങ്ങൾ തമ്മിൽ കൂട്ടി ഉരച്ച് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ആറമ്മുള കണ്ണാടി അവര് നിർമ്മിക്കുന്നത് പിന്നതുപോലെ തന്നെ അവിടുത്തെ വള്ളം കളി ആറമ്മുള വള്ളം കളി വളരെയധികം പ്രശസ്തമാണ് അതുപോലെ തന്നെ വള്ള സദ്യ ഇതിലൊക്കെ പങ്കെടുക്കാനായിട്ട് ഒരുപാട് വിനോദസഞ്ചാരികളതുപോലെ തന്നെ ഒരുപാട് ആളുകള് പത്തനംതിട്ട ജില്ലയില് എത്തി ചേരുന്നുണ്ട്

സൂചിപ്പിച്ചതുപോലെ വള്ള സദ്യ അതുപോലെ തന്നെ ആറമ്മുള കണ്ണാടി ഇതൊക്കെ ഞങ്ങളുടെ ജില്ലയിൽ മാത്രം അതി പ്രശസ്തമായി നിൽക്കുന്ന സ്ഥാപനമാണ് അല്ലെങ്കിൽ സ്ഥലങ്ങളാണ് പിന്നതുപോലെ തന്നെ ശബരിമല ക്ഷേത്രം ഒട്ടു മിക്ക ഹൈന്ദവ വിശ്വാസികളും എത്തിച്ചേരുന്ന സ്ഥലമാണ് ശബരി ശ്രീ അയ്യപ്പൻ ശ്രീ അയ്യപ്പൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ശ്രീ അയ്യപ്പൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ശബരിമല അയ്യപ്പനെ ഒരു നോക്ക് കാണാനായിട്ട് ആയിരക്കണക്കിന് ഭക്ത ജനങ്ങളാണവിടെ ഓരോ വർഷവും തിങ്ങിക്കൂടുന്നത് വളരെയധികം തിരക്ക് കൂടിയ ഒരു സ്ഥലമാണ് ശബരിമല അങ്ങനെ ഒട്ടനേകം സ്ഥലങ്ങള് ഞങ്ങളുടെ ജില്ലയിൽ വളരെയധികം മറ്റ് ജില്ലകളിൽ നിന്ന് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ജില്ലകളുണ്ട്